ഓ ഞാനൊരുപാട് മീൻസ് കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട ഏർപ്പെട്ടിട്ടുണ്ട് ആ എൻ്റെ കായിക മീൻസ് ഇഷ്ടപ്പെട്ട കായിക ഇനങ്ങളെന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ രണ്ടാം ക്ളാസ് മുതലേ സ്പോർട്സിൽ പങ്കെടുക്കണ ഒരാളാണ് അന്നുമുതലേ ഓട്ടം ആ ഒരിതിലായിരുന്നു ടൂ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ആ ഒരു ഓട്ടത്തിൻ്റെ ഇതിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്

ചാട്ടം അറി മീൻസ് ലോങ്ങ് ജമ്പും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ പിന്നീട് എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഹഡിൽസ് എന്നു പറഞ്ഞിട്ടുള്ള ഒരു ദ് ഐറ്റം ഞാനാ പരിചയപ്പെടണത് അതിൽ പ്രേത്യേകിച്ച് എനിക്ക് മീൻസ് അതിൻ്റെയൊരു ഇതെന്താണെന്നു വെച്ചാൽ നമ്മൾ ഓടുക ചാടുക ഓടുക ചാടുക ആ ഒരു ടൈപ് ഓഫ് സംഭവമാണ് എനിക്ക് ചാടാനുള്ളത് അതിനൊക്കെ ഏതോ പ്രത്യേക ടൈപ്പ് ഓഫ് ഇതൊക്കെയുണ്ട് കാരണം നമ്മൾ ചാടണതൊക്കെ പ്രത്യേക ശൈലിയിലാണ് പക്ഷേ എനിക്കതിലൊന്നും അറിയുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഓട്ടത്തിലെ സ്പീഡുകൊണ്ട് ഞാൻ സ്റ്റേറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതു കൊണ്ടു തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കായിക ഇനങ്ങളിൽ പാറയാണെന്നുണ്ടെങ്കിൽ ഹഡിൽസ് തന്നെയാണ് നമ്മൾ മീൻസ് ജില്ലാ ഫസ്റ്റ് നമ്മൾ സ്കൂൾ തലത്തിൽ കളിക്കും പിന്നീട് നമ്മൾ സബ് ജില്ലയിൽ കളിക്കും പിന്നെ നമ്മൾ ജില്ലയിൽ കളിക്കും പിന്നെ നമ്മൾ സ്റ്റേറ്റിക്ക് കളിക്കും സ്റ്റേറ്റ് വരെയാണ് ഞാൻ പോയിട്ടുള്ളത് അതിൻറ്റപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല അതുപോലെ തന്നെ നേരിട്ട് നമുക്ക് ജില്ലക്ക് സെലക്ഷൻ കിട്ടണെ വേറൊരു രീതിയിലും ഉണ്ട് അതുപോലെതന്നെ ഒരുപാട് മീൻസ് ഞാൻ ബെസ്റ്റായിട്ട് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തിയിരുന്നത് കായികം മീൻസ് കായികത്തിൽ പ കായിക വിനോദങ്ങളിൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ആ ഓടുക ചാടുകയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏജെത്തിയപ്പോൾ എനിക്കത് വേണ്ടില്ലായിരുന്നു വേണ്ടാ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് പക്ഷേ എനിക്ക് ഹഡിൽസ് മീൻസ് ഷട്ടിൽ കളിക്കാം ബാഡ്മിൻറ്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കളിക്കലുണ്ട് മീൻസ് ഫ്രീ ടൈമിലൊക്കെ ഹോസ്റ്റലിലാണെങ്കിലും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ബാഡ്മിൻറ്റൺ കളിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും കളിക്കാറുണ്ട് അനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കാരണം ഞാനേ ഹഡിൽസ് നിർത്തി ഓട്ടം ചാട്ടമൊക്കെ നിർത്തിയതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് ബാഡ്മിൻറ്റൺ കളിച്ചിട്ടാണ്